കോഴിക്കോട് ജില്ലയിലെ ആളുകള് പിന്തുടരുന്ന ചില പൊതുവായ തൊഴിലുകള് അല്ലെങ്കില് ജോലികള് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലൊരു പ്രത്യേകത ഉണ്ട് മെയിന് ആയിട്ട് എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ജോലി ഇല്ലാത്തവരൊക്കെ വളരെ കുറവായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും ഇന്സ്റ്റിട്ട്യൂട്ടുകൾ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതായതുകൊണ്ട് അത് കൊണ്ടു തന്നെ നമുക്ക് ആളുകള്ക്കൊന്നും ജോലിക്ക് ഒരു ക്ഷാമമൊന്നുമില്ല അപ്പോൾ മാളുകൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ കിട്ടും അതുകൊണ്ട് ജോലിക്കൊന്നും ക്ഷാമമില്ല ഇപ്പോൾ പഠിക്കുന്ന കുട്ടികള്ക്കാണെങ്കിലും അതായത് നല്ല നല്ല ഇന്സ്റ്റിട്ട്യൂട്ടുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുട്ടികള്ക്കും അത് വലിയ ഒരു ബുദ്ധിമുട്ട് ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ജെ കാരണം നമുക്ക് ജോലിക്കൊന്നും വലിയ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സി കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അതായത് പി എസ് സി ഒക്കെ ഉദ്ദേശിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കില് നമ്മൾ നല്ലവണ്ണം പഠിക്കണം പഠിച്ചിട്ടു നമുക്ക് അത് കിട്ടുകയുള്ളൂ അല്ലാണ്ട് ഇപ്പം പ്രൈവറ്റ് ഫേമിലൊക്കെ നമ്മൾ അത്യാവശ്യം നമുക്ക് എജ്യൂക്കേഷന് കോളിഫിക്കേഷന് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ജോലികളൊക്കെ കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മാക്സിമം ഏതൊരു കടയിലേക്കും വേണമെങ്കിൽ നമുക്ക് പന്ത്രണ്ടായിരം പതിനഞ്ചായിരത്തിനു പുറമേ നമുക്ക് എങ്ങനെയാണെങ്കിലും ജോലിയും കാര്യങ്ങളും കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് അത് വലിയ കാര്യങ്ങളാണ് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജോലി ഇപ്പം പറയാന് അക്കാദമിക് കൗണ്സിലറായിട്ട് ലബോറട്ടറി ടെക്നീഷ്യന്സ് സൈറ്റ് സൂപ്പര്വൈസര് അങ്ങനെയുള്ള ഒരുപാട് ജോലികള് അതുമാത്രമൊന്നുമല്ല അതിലും കൂടുതല് ഒരുപാട് ജോലികള് നമുക്കിവിടെ കോഴിക്കോട് ജില്ലയില് നമുക്ക് കിട്ടുന്നുണ്ട്